പാലക്കാട്ടിലെ പ്രധാന ഉത്സവമെന്ന് പറയണത് രഥോത്സവമാണ് അതിൽ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് രഥോത്സവം രഥോത്സവമെന്ന് പറയുമ്പോൾ കൽപ്പാത്തി ഭാഗത്ത് കൽപ്പാത്തിയിൽ മാത്രമല്ല രഥോത്സവം ഉള്ളത് കൽപ്പാത്തി രഥോത്സവം അതായത് മെയിൻ രഥോത്സവത്തിലൊന്നാണ് കൽപ്പാത്തി രഥോത്സവം ഒരു മൂന്നു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് രഥോത്സവം ഫസ്റ്റ് ദിവസം രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമാണ് മെയിൻ രഥോത്സവമെന്നു പറയുന്നത് പല ദേശക്കാരുടെ രഥങ്ങൾ വലിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് വരുന്ന ഒരു രീതിയാണ് അതും ആളുകളായിരിക്കും വലിക്കുക അതേപോലെ ആനയുണ്ടാവും വലിയ രഥങ്ങളുണ്ടാവും ചെറിയ രഥങ്ങളുണ്ടാവും ഒരു പത്തു നൂറ്റമ്പത് പേര് ഇരുന്നൂറ് പേരൊക്കെ കൂടിയിട്ടായിരിക്കും രഥങ്ങൾ വലിക്കുക അതോടൊപ്പം പിന്നെ അവിടെനിന്ന് തള്ളാൻ വേണ്ടിയിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ആനയും ഉണ്ടാവും ആന പിന്നെ അവിടെനിന്ന് ചക്രത്തിൽ മരത്തിൻ്റെ ചക്രമായിരിക്കും അതിൽ മെല്ലെ തുമ്പിക്കൈകൊണ്ട് തള്ളിക്കൊടുക്കും അപ്പോൾ ആന തള്ളുന്നതുകൊണ്ട് തന്നെ അത് ഉരുണ്ട് പോകും അതേപോലെ ഈ പത്തു നൂറ്റമ്പത് പേർ വലിക്കുമ്പോൾ അത് നീങ്ങിക്കോളും അങ്ങനെയാണ് രഥോത്സവം നടത്താറ് അതേപോലെ കുറേ കാണാനും അവിടെ കാഴ്ചകൾ കാണാനും ഒരേ ഒരുപാട് ആൾക്കാരുണ്ടാവും നല്ല തിരക്കേറിയ ഒരു ഉത്സവം കൂടിയാണ് രഥോത്സവം